എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ബഷീർ ബഷീറിൻ്റെ മതിലുകൾ എന്ന ബുക്കാണ് ഞാൻ ഏറ്റവും ആദ്യമായി വായിക്കുന്നത് ആദ്യം വായിച്ച ബുക്കിനോടായിരിക്കുമല്ലോ നമുക്കെപ്പോഴും ഒരു പ്രിയപ്പെട്ട തോന്നുന്നത് അതിലും ഒരുപാട് ഗാന്ധിജിയുടെ സത്യാന്വേഷണങ്ങളും അങ്ങനെ പല ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട് എങ്കിൽ കൂടേയും എനിക്ക് ആദ്യം വായിച്ച ബുക്കിനോടെപ്പോഴും ഒരു കൗതുകം തന്നെയാണ് അതിൽ തന്നെ ആദ്യമായൊരു വായിക്കാൻ തോന്നി ഞാൻ വായിച്ചത് മതിലുകളെന്ന ബഷീറിൻ്റെ കൃതിയായിരുന്നു പക്ഷേ എനിക്കതിൽ നിന്ന് ഒരുപാട് ഇഷ്ടം തോന്നി കാര്യം അത്രത്തോളം ആ ഒരു സ്നേഹബന്ധത്തെ ബഷീർ നല്ല രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് അതിൽ പലരും പല ക്ലിഷേ വാക്കുകൾ ഉണ്ടെന്ന് പറയുമെങ്കിലും എനിക്കതിനോട് സ്നേഹം തോന്നിയത് ആ കാലഘട്ടത്തിലെ ഒരു പ്രണയകാവ്യം പോലെ അതിനെ മനോഹരമായി ബഷീർ വർണ്ണിച്ചിരിക്കുന്നു നമുക്ക് വായിക്കും തോറും വായനക്കാരിൽ ഒരു സ്നേഹം ഉൾകൊള്ളാൻ സ്നേഹത്തെ പഠിക്കാനും മനസ്സിലാക്കാനും ആ പുസ്തകത്തിലൂടെ നമുക്ക് കഴിയാവുന്ന കഴിയുന്നതാണ് എനിക്ക് അതിൽ നിന്ന് പല കാര്യങ്ങളോടും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അതായത് എനിക്കിപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരുപാട് കഥയെക്കുറിച്ച് പറയുമ്പോൾ അതിലെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു എങ്ങനെയാണൊരു സ്നേഹബന്ധം അല്ലങ്കിൽ തന്നെയും നമുക്കാ ബഷീർ അത്രത്തോളം തന്നെ വർണ്ണിച്ച് തരികയാണ്